ഇപ്പം ഒരു നവജാത ശിശുവിന് ആദ്യം ചെയ്യുന്ന അതായത് ഇപ്പം ഒരു വയസ്സിന് ഉള്ളിൽ ചെയ്യുന്ന അനിഷ്ടാന എന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം തന്നെ അവരെ കൂട്ടി കൊണ്ട് വന്ന് കഴിഞ്ഞാല് നമ്മളുടെ ഉള്ളിലേക്ക് കയറ്റുന്ന ടൈമില് കുട്ടിക്ക് ആരതി ഉഴിയുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ കുട്ടിക്ക് വേറെ ദോഷങ്ങളോ കാര്യങ്ങളോന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അത് നമ്മുടെ ഹിന്ദുക്കളിലാണ് കൂടുതലായിട്ടും ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഹിന്ദുക്കളില് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഇരുപത്തെട്ടാമത്തെ ദിവസം നൂല് കെട്ടുക അതായത് അരയില് അരഞ്ഞാണം അങ്ങനത്തെ രീതിയില് കെട്ടുന്നതിനെ ആണ് ഇരുപത്തി എട്ട് കെട്ടുക എന്നൊക്കെ പറയുക അപ്പം അതും ഇരുപത്തി എട്ടാം ദിവസം ചെയ്യുന്നതാണ് അപ്പം അതും ഈ ഹിന്ദുക്കളിലാണ് ചെയ്യുന്നത് പിന്നെ പറഞ്ഞ് കഴിഞ്ഞാല് അതിപ്പം മുസ്ലീംസിൻ്റെ ഇടയിലാണെങ്കില് കുട്ടീനെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ആദ്യം തന്നെ കുട്ടിക്ക് ഒരു ഒരു വെള്ളം കാര്യങ്ങളൊക്കെ കൊടുക്കും അവര് ജനിച്ചപാട് തന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ മുടി മുട്ട അടിക്കൽ മുട്ട അടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരുടെ രീതിയില് ചെയ്യും പിന്നെ മുസ്ലിം ക്രിസ്ത്യൻസിൻ്റെ ഇടയില് മാമോദിസ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരുടെ ഇടയിലും ചെയ്യുന്നതാണ്